എനിക്ക് ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെതന്നെ എനിക്ക് എവിടെ എ ഏതൊരു വീട്ടിൽ പോയാലും ഏതൊരു സ്ഥലത്ത് പോയാലും എന്തെങ്കിലുമൊരു ചെടി കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുകയും എപ്പോഴാണ് അതിൻ്റെ ഫലം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പൂ വിരിയുന്നത് എന്നൊക്കെ ചോദിച്ചറിഞ്ഞ് ഞാനത് ചില സമയങ്ങളിൽ ഞാനതിൻ്റെ തൈകൾ വാങ്ങി കൊൺ ഇപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒരു ക ഒരു ഒരു ചെറിയൊരു പീസ് മുറിച്ചെടുത്തിട്ട് കൊണ്ടുപോയി നട നടാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ തൈകൾ കിട്ടുകയാണെങ്കിൽ ഞാനങ്ങനെ വാങ്ങിക്കൊണ്ടു പോയി നടാറുണ്ട് അതുപോലെതന്നെ ഞാൻ ഒരുപാട് ഫാമുകളിലൊക്കെ പോകുമ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ ഫാമുകളൊക്കെ ഒക്കെ കണ്ടാൽ അവിടെ കയറിയിട്ട് ചെടികൾ വാങ്ങാൻ കയറും അപ്പം ഞാൻ അവരോട് ചോദിക്കും ഇപ്പം അതിന് എന്ത് മണ്ണാണ് ഉപയോഗിക്കേണ്ടത് പിന്നെ ഏത് സീസണിലാണ് ആ പൂ വിരിയുന്നത് പിന്നെ ഇപ്പം ഡാലിയ പോലെയുള്ള പൂക്കളിൽത്തന്നെ പലതരം കളറുകളിൽ നമുക്ക് കിട്ടും അപ്പം അത് അതുപോലെയുള്ള കളറുകളിൽ നമ്മൾ ഞാൻ ഒരു ഒരുപാട് കളറുകൾ ശേഖരിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഞാൻ പൂക്കളുണ്ടാക്കിയിട്ടുണ്ട് അതുപോലെതന്നെ ഞാൻ ഫ്ലവർ ഷോകളിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ ഞാ ഇവിടെ കേരളത്തിൽ അമ്പലവയലും അതുപോലെ ബത്തേരി സുൽത്താൻ ബത്തേരി ബീനാച്ചി ആ ഒരു ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഒരു ഫ്ലവർ ഷോ നടക്കാറുണ്ട് അപ്പോൾ വർഷങ്ങളിലാണ് ഈ ഫ്ലവർ ഷോ നടക്കാറ് അപ്പോൾ ആ ഫ്ലവർ ഷോ ഉള്ള സമയത്ത് ഞാനവിടെ പോകുകയും ആവശ്യമായ പൂക്കൾ അവിടെ നിന്നും വാങ്ങുകയും ചെയ്യാറുണ്ട് പിന്നെ അത് എങ്ങനെ നമ്മളിപ്പോൾ ഒരു ചെടി എങ്ങനെ പരിപാലിക്കണം ഏതൊക്കെ സമയങ്ങളിൽ വെള്ളം ഒഴിക്കണം പിന്നെ എത്ര എത്ര അളവിൽ വെള്ളം ഒഴിക്കണം അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ചെടികളൊക്കെ നട്ട് വളർത്താറ്